നാല്പത്തി രണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഒമ്പതു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്